ഹലോ ഫോട്ടോ സ്റ്റുഡിയോ ആയിരുന്നു ആരായിരുന്നു ബഡ്ജറ്റ് ഏതിൻ്റെയാണ് ഫോട്ടോ എടുക്കുന്നതിന്റെയാണോ വെഡിങ്ങിൻ്റെയാണോ ആ ഓക്കേ ഓക്കേ അപ്പോൾ അതിന് എല്ലാം വേണമല്ലേ ആ അപ്പോൾ അതിന് നമുക്കിപ്പോൾ വീഡിയോ അങ്ങനെയെന്തെങ്കിലും വേണോ ഫോട്ടോ മാത്രമാണോ അതോ വീഡിയോ എല്ലാം കൂടെയാണോ രണ്ടും കുടെയാണല്ലേ രണ്ടുംകൂടെ ആകുമ്പോൾ നമുക്ക് വൺ ലാക്കിൻ്റെ അടുത്തുവരും പിന്നെ ഹെലിക്കാമോ അങ്ങനെയെന്തെങ്കിലും വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊക്കെ മതിയല്ലേ ആ ഓക്കേ ഓക്കേ അപ്പോൾ അതിന് നമുക്ക് ഏകദേശം ഹേലിക്കാമും അങ്ങനെയൊന്നും ഇല്ലാണ്ട് വിഡിയോയും ഫോട്ടോയും എല്ലാം അടക്കം വരുന്നത് വൺ ലാക്ക് അതിന്റെയുള്ളിൽ വരും ആ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും സി ഡിയായിട്ട് വേണ്ടേ അതോ പെൻഡ്രൈവിലാക്കി തന്നാലും മതിയോ ആ പെൻഡ്രൈവിലാണെങ്കിൽ പെൻഡ്രൈവ് നിങ്ങൾ കൊണ്ടുവരുമോ അതോ ഞങ്ങൾ ഇവിടെനിന്ന് റെഡി ആക്കണോ കൊണ്ടുത്തരും അപ്പോൾ പെൻഡ്രൈവിൽ ആക്കി തരാം പിന്നെ വരുന്നത് നമുക്ക് ഓരോ ലീഫിന് അനുസരിച്ചാണ് നിങ്ങൾക്ക് മറ്റേ ആൽബവും കാര്യങ്ങളൊക്കെ വേണ്ടേ ആ അപ്പോൾ ആൽബം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഉണ്ട് ഉണ്ട് എല്ലാമുണ്ട് അപ്പോൾ അതെങ്ങെനെയാണ് വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് നമുക്കോരോ ലീഫിന് അനുസരിച്ചാണ് പൈസ വരുക അതിനകത്തുള്ള പേജിനനുസരിച്ച് ഇപ്പോൾ അറുപത് പേജിനാണ് കുറച്ചുംകൂടി റേറ്റ് കൂടുതൽ പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെത്തേതിനൊക്കെയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എടുക്കേണ്ടേ വേണമല്ലേ ആ ഓക്കേ ഓക്കേ അപ്പോൾ ഏകദേശം കല്യാണം അതായത് നവംബർ ലാസ്റ്റ് അല്ലേ നവംബർ മുപ്പത്തിന്റെയാണോ ആ ഓക്കേ ഓക്കേ അപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ നമുക്ക് നിങ്ങൾക്കെപ്പോഴാണോ സൗകര്യം അത് പറഞ്ഞാൽ മതി നമുക്ക് കുഴപ്പമില്ല ഈ മാസം നമുക്ക് വലിയ വർക്കും കാര്യങ്ങളുമൊന്നുമില്ല പുറത്താണോ കോഴിക്കോടല്ലാണ്ട് വയനാടോ വയനാടാവുമ്പോൾ അത്യാവശ്യം നേച്ചർ ബ്യൂട്ടിയും കാര്യങ്ങളുമൊക്കെയുണ്ട് ആ ഓക്കേ ഓക്കേ ആ ആ അതുപിന്നെ അവസാനം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിനുശേഷം നിങ്ങൾക്കെപ്പോഴാണോ സമയം കിട്ടുന്നത് അത് നമുക്കെടുക്കാം കുഴപ്പമില്ല എന്നാലും ഈ പ്രീ വെഡിങ് നമുക്കൊരു പതിനാലിനെടുത്താലോ ആ ആ വയനാട് നമുക്ക് വയനാടിന് ഏതെങ്കിലും റിസോർട്ടിൽനിന്നോ അങ്ങനെയെന്തെങ്കിലും എടുത്താൽ മതിയാവുവോ അതോ കാട് അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയസ് മതിയോ ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങൾ നോക്കുവോ അതോ ഞങ്ങൾ തന്നെ നോക്കണോ ഓക്കേ നോക്കാം ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് റെഡി ആക്കി തരാം കേട്ടോ ആ രണ്ടു വണ്ടി ആ ഞങ്ങൾ വണ്ടിയെടുക്കാം പിന്നെ അഡ്വാൻസ് ഒരു പതിനായിരം രൂപ നിങ്ങൾ തരേണ്ടിവരും കേട്ടോ കാരണം അവിടംവരെ പോവണമെങ്കിൽ ആ ഈ നമ്പർ തന്നെ ഗൂഗിൾ പേ ഇതിനകത്ത് തന്നെയാണ് വരുന്ന അന്ന് തന്നാലും മതി പതിനാലാം തീയതി തന്നാലും മതി ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ഒന്ന് തലേ ദിവസമൊന്ന് വിളിക്കണം കേട്ടോ എത്ര മണിക്കാണ് പോവുന്നതെന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും രാവിലെ പോവാം കാരണം നമുക്ക് കുറച്ച് ലൈറ്റ് കുറവുള്ള സമയമാണ് കുറച്ചുകൂടെ നല്ല ഫോട്ടോ ഉണ്ടാവുക ആ ഓക്കേ ഓക്കേ ആ